അതെ പറഞ്ഞോളൂ ഓക്കെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ കസിന് എന്താണ് അസുഖം ക്യാൻസർ ആണോ ഓക്കെ നമുക്കിവിടെ എറണാകുളത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് അല്ല കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലും ഉണ്ട് നല്ല ഒരു ഓക്കെ ഗവണ്മെന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതോ പ്രൈവറ്റ് ആണോ വേണ്ടത് ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിൽ ചെന്നാലും മതി ഈ ഒരിതെന്നുവെച്ചാൽ ലെക്ഷയ

അതു ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിക്കാം വന്നേക്ക് എന്തായാലും വന്നോളൂ

പൈസ എന്തായാലും ത്രീ ലാക്കിൻ്റെ അടുത്തുവരും

ആ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഈ ഇതുണ്ടോ ഇൻഷൂറൻസ് ഉണ്ടോ ആ അപ്പോൾ നമുക്ക് അതിൽനിന്ന് ഡിസ്കൌണ്ട് കിട്ടും

ആ ഓക്കെ എന്നെ വിളിച്ചിട്ട് വന്നാലും മതി ഓക്കെ ഓക്കെ ആ ഓക്കെ